സ്കൂളുകളിൽ ഒരുപാട് തരത്തിലുള്ള കായിക മത്സരങ്ങളോ അതല്ലെങ്കിൽ പാഠ്യേതര പ്രവർത്തനങ്ങളുണ്ട് പ്രത്യേകിച്ച് സ്കൂൾ കാലഘട്ടങ്ങളിലുള്ള ഐ ടി മേഖലകളിലുള്ള ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ലിറ്റിൽ കൈറ്റ്സെന്നു പറയുന്നത് ഒരുപാടു കുഞ്ഞുങ്ങളില് ഐ ടി മേഖലകളില് അവരുടെ പഠന മേഖലകൾ അവരുടെ കഴിവു കാണിക്കാൻ ഐ ടിയോടു ബന്ധപ്പെട്ട അവരുടെ കഴിവു കാണിക്കാൻ പറ്റുന്ന വലിയൊരു ഓപ്ഷൻ തന്നെയാണ് അല്ലെങ്കിൽ വലിയൊരു വഴി തന്നെയാണ് ലിറ്റിൽ കൈറ്റ്സെന്നു പറയുന്നത് ഒരുപാട് തരത്തിലുള്ള ഇന്നോവേറ്റീവൈസ് ഒക്കെ ഉള്ള ഐഡിയാസ് അവർക്കു കൊണ്ടുവരാൻ ഒക്കെ ഈ ഐ ടി മേഖലകളിൽ ഈ ലിറ്റിൽ കൈറ്റ്സ് മുഖേന കഴിയുന്നു അത് അവരുടെ ജീവിതത്തില് തുടർന്നുള്ള ഭാവിക്ക് ഒരു വലിയൊരു പ്രാധാന്യം അർഹിക്കുന്ന സാധനം തന്നെയാണ് ഈ ഐ ടി മേഖലകളിലുള്ള ഈ ലിറ്റിൽ കൈറ്റ്സ് പോലെയുള്ള സംഭവങ്ങൾ അതോടൊപ്പം തന്നെ ഒരുപാട് തരത്തിലുള്ള കായിക മത്സരങ്ങള് എൻ സി സി സ്കൗട്ട് ജെ ആർ സി അങ്ങനെ ഒരുപാട് തരത്തിലുള്ള കായിക മികവ് തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ സ്കൂൾ തലങ്ങളിലുണ്ട്